ഹലോ ബാബു ചേട്ടനാണോ ഇത് കുറ്റി കോണത്ത് നിന്നാണ് നമ്മുടെ പള്ളിയിടെക്കെ സൈഡായിട്ട് വരും നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിലെ ചേട്ടാനെ ഈ ഈ പ്ലംബിംങ്ങ് വർക്കൊക്കെ ചെയ്യുന്ന ചേട്ടനല്ലേ ആ ഓക്കേ ഓക്കേ ആ നമ്മുടെ ഇവിടെ ഒരു ശകലം പൈപൊന്നു ലീക്ക് ഉണ്ടായിരുന്നു ഞാനൊന്ന് നോക്കീപ്പം പിള്ളേർ വല്ലോം കളിച്ചതാണെന്ന് തോന്നുന്നു പൈപ്പ് ശകലം പൊട്ടീട്ടുണ്ട് ആ അതൊന്നിച്ചിരി മാറ്റി പുറത്തുവച്ചതാണ് നമ്മുടെ പുറത്തോട്ട് പോയിരിക്കുന്ന കണക്ഷൻ്റെയാണ് അത് ശകലം ലീ ഒന്നര ഇഞ്ചാന്ന് തോന്നുന്നു ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് ആ ഞാനിപ്പൊഴേ എനിക്കത്യാവശ്യമായിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കയാണ് അപ്പം ചേട്ടനെപ്പോഴാണ് ഒന്ന് വന്നൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് വല്ലോം സമയമുണ്ടാവോ ഓക്കേ ഓക്കേ ആ അപ്പം എങ്ങനെയേട്ടാ നമ്മൾ ഒരു ദിവസമൊക്കെ വരുമ്പം ശകലം മണ്ണ് കുഴിച്ചെക്കെ പൈപ്പ് മാറാനുണ്ട് വരുമ്പം അങ്ങനുള്ള കാര്യങ്ങൾ ആ

ആ ഒക്കെ നമുക്കന്നേരമിപ്പം ആ സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ട് വരും ചേട്ടാ ഞാൻ ചേട്ടനെന്നാൽ വന്നു നോക്കിയിട്ട് എന്തുമാത്രം സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് ചേട്ടനൊന്ന് വന്ന് നോക്കാവോ ഒന്ന് നോക്കിയിട്ടേ അങ്ങനെയാണെങ്കിൽ എഫക്ട് നമുക്ക് ആ

ഒന്ന് എക്സ്റ്റിമേറ്റൊന്നെടുത്തിട്ട് ഒന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേട്ടൻ മേടിക്കുന്നെങ്കിൽ മേടിച്ചോ അല്ലേ ഞാൻ മേടിച്ചരണമെങ്കിൽ മേടിച്ചരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അ ആ പൈസ അന്നേരം ആ എല്ലാത്തിനും ബില്ലൊന്ന് മേടിച്ചേക്കണം നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ബില്ലെല്ലാം ഒന്ന് നമുക്ക് കണക്ക് കിട്ടാൻ വേണ്ടി ആ ഓക്കേ ബില്ല് സൂക്ഷിക്കണം അതോണ്ട് കണക്കൊക്കെ ഓഡിറ്റിങ്ങിനു പോകുന്നതല്ലേ അന്നേരപ്പം ചേട്ടന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വരുന്നത് എങ്ങനയാണ് ഭക്ഷണം വല്ലോം കരുതണോ ആ അ ഭക്ഷണം ആ ഓക്കേ ആ ആണോ എത്ര രൂപ നമ്മൾ കൊടുക്കണമായിരിക്കും ഉദ്ദേശം എത്ര രൂപ ഞാൻ ഉച്ച കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ എത്ര രൂപ കൊടുക്കണമായിരിക്കും

ആ ഓക്കേ

ഒരു മൊത്തം അറുനൂറ് രൂപ കൊടുത്താൽ മതിയാവോ ആ ആ ഓക്കേ ആ ആ നോക്കിയിട്ടാണ് പറയുന്നത് അല്ലേ ആ ആ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റെ ചെയ്യണം ആ ഓക്കേ ഓക്കേ ഓക്കേ ആ പിന്നെ നീറ്റായിട്ട് നല്ല പണി അറിയാവുന്ന ആൾക്കാരെ വിടണം കേട്ടോ അല്ലെങ്കിൽ ചേട്ടൻ വരുന്നുണ്ടെങ്കിലേ ആ ആ ഓ ഓ ഓക്കേ അപ്പം കാണാം ഓക്കേ വൈകുന്നേരം ഈ നമ്പരീ വിളിച്ചാൽ മതി കേട്ടോ വരുമ്പം ഈ നമ്പരീ ഒന്ന് വിളിച്ചാൽ മതി ഓക്കേ ഓക്കേ